കോഴിക്കോട് ജില്ലയില് ആഘോഷിക്കുന്ന പ്രധാന സാംസ്കാരിക ഉത്സവങ്ങള് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരുപാട് ഉത്സവങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കോഴിക്കോടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ടൗണ് തന്നെയാണ് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിലും പല നല്ല നല്ല ഉത്സവങ്ങളും കാര്യങ്ങളും അതായത് നമ്മൾ ഒരുപാട് പേര് ഒത്ത്ചേ ഒത്ത്ചെ ഒത്ത് കൂടുന്ന ഒരുപാട് പിന്നെ ഇതൊക്കെയുണ്ട് അത് ഒരുപാട് പിന്നെ ഉത്സവങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതുപോലെ നമുക്ക് ദീപാവലി ഹോളി ഉഗാദി സംക്രാന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് കോഴിക്കോടുകാരെല്ലാവരും പിന്നെ ഒരുപാട് എല്ലാവരും ഒത്തുകൂടി ചേർന്ന് അത് ചേർന്ന് നടത്തുന്ന ഓരോ പരിപാടികളാണ് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്സവങ്ങള് പറയുകയാണെങ്കിൽ നമുക്ക് കടപ്പുറത്ത് ഭഗവതീക്ഷേത്രത്തില് അറക്കൽപുരം അതൊക്കെ നമുക്ക് ഫേമസായിട്ടൊള്ള കാര്യങ്ങളാണ് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് വാർഷിക കഥകളി ഉത്സവം അങ്ങനുള്ളതൊക്കെ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് ശ്രീമഹാശിവക്ഷേത്രത്തിലെ ത്യാഗരാജ ഉത്സവം അതൊക്കെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫേമസായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇത് ഇതല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്